കേരളത്തിൻ്റെ തനിമ ഫുഡുകളാണ് നമ്മുടെ നാട്ടിലെ കപ്പയും മീൻ കറിയുമൊക്കെ ഇതൊക്കെ രാവിലത്തെ പ്രഭാത ഭക്ഷണങ്ങളും നൈറ്റിലത്തെ ഡിന്നർ ഫുഡുകളൊക്കെ ആയിട്ടാണ് കേരളത്തിലെ ഇപ്പോൾ ഉണ്ടായി വരുന്നത് ഇപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാ കടകളിലും വരുന്നുണ്ട് ഇപ്പം സ്ത്രീകൾ തന്നെയല്ല ഇപ്പം പുരുഷന്മാരുമാണ് ഇഷ്ട്ടം പോലെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബർമാരായിട്ടും അല്ലാതെ ഫേസ്ബുക് പോസ്റ്റുകളൊക്കെ ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും പഴയ വേർതിരിഞ്ഞു പോകുന്ന ഫുഡ് ഐറ്റംസുകളൊക്കെ ആണ് ഇപ്പോൾ കൂടുതൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ കടകളിലൊക്കെ ചെന്നാലും പ്രായായ അമ്മച്ചിമാരൊക്കെ പഴങ്കഞ്ഞിയൊക്കെ കടകളിൽ ഇപ്പോൾ ഇഷ്ടം പോലെ വിതരണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് മാറി പോകുന്ന ഓരോ ഫുഡുകളും അറബി ഫുഡുകളുണ്ട് പിന്നെ ചൈനീസുണ്ട് നോർത്ത് ഇന്ത്യനുണ്ട് വെസ്റ്റ് ഉണ്ട് ഇന്ത്യാ ഫുഡുകളുണ്ട് ഇതെല്ലാം എല്ലാവർക്കും ഇഷ്ടമാണ് കുടുതലും ഇപ്പോൾ ആണുങ്ങളാണ് ഫുഡിലേക്ക് വരുന്നത് പെണ്ണുങ്ങൾ സഹായത്തിനൊക്കെയായിട്ട് നിൽക്കുന്നത് മുൻകാലങ്ങളിൽ സ്ത്രീകൾ ഉണ്ടാക്കുകയും ആണുങ്ങൾ അത് പാചകം ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുകയായിരുന്നു ഇപ്പോൾ നേരെ തിരിഞ്ഞാണ് വരുന്നത് ഹെൽപ് ചെയ്യുന്നത് പെണ്ണുങ്ങളും ഉണ്ടാക്കുന്നത് ആണുങ്ങളുമായിട്ടാണ് വരുന്നത് എന്തായാലും നല്ല ഫുഡാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് ഇപ്പം ഇടി ഞങ്ങളുടെ ഇടുക്കിയെ സംബന്ധിച്ച്

ഇപ്പം സ്ത്രീകളൊക്കെ ആണെങ്കിൽ വീടുകളിൽ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ആണുങ്ങൾ പുറത്തു പോയി ഫുഡിനുള്ള സാധനങ്ങളൊക്കെ തിരിച്ചുകൊണ്ടു വരുന്ന കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം സ്ത്രീകൾക്കും അതുപോലെ തന്നെ ആണുങ്ങൾക്കും പ്രാധാന്യം ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഫുഡ് വീട്ടിലെ